ഹലോ ഡോക്ടർ അല്ലെ ഹലോ ഭയങ്കര പനി കൊറോണ പേഷ്യൻ്റെ ആണേ അതെ അതെ ടെസ്റ്റ് ഇന്നലെ ചെയ്തു പോസിറ്റീവ് ആണ് അ അതെ അതെ റൂമിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അ അങ്ങനെ തന്നെ ആണ് ആരുവായിട്ടും സമ്പർക്കൊന്നും ഇല്ല ഓക്കെ അ മാസ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ല ഒന്നും കിട്ടിയില്ല

ഓക്കെ ഓക്കെ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്തേലും കഴിക്കാം ഓക്കെ

ഇല്ല ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഭക്ഷണം നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റുവോ നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കണോ

ഓക്കെ ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട്

അ ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട് അ അ ഇല്ല ഇല്ല വേറെ ഇല്ല വേറെ കുഴപ്പം ഒന്നും ഇല്ല വിളിക്കാം വിളിക്കാം